ഏറ്റവും കൂടുതൽ നെയ്യുകയും നെയ്യാറില്ല തുന്നാറുണ്ട് തുന്നുന്ന സാധനം എനിക്കുള്ള ആവശ്യം ഉള്ള വസ്ത്രങ്ങൾ എൻ്റെ സാരി ബ്ലൗസ് ചുരിദാറുകൾ പിന്നെ മറ്റുള്ളവരുടെ ബ്ലൗസുകൾ ചുരിദാറുകൾ ഒക്കെ തയ്ച്ചു കൊടുക്കാറുണ്ട് കുട്ടികൾക്ക് എൻ്റെ എൻ്റെ കുട്ടികൾക്ക് ആവശ്യം ഉള്ള തുണികൾ തയ്ച്ചു കൊടുക്കാറുണ്ട് ഞാനിപ്പോൾ മാനുവൽ ആയിട്ട് ഉള്ള സാധാരണ ഒരു മഷീനാണ് ഉപയോഗിക്കുന്നത് എങ്കിലും അതു വേഗത്തിൽ തയ്ക്കുന്നതിന് ഇലക്ട്രിസിറ്റിയുടെ മോട്ടർ ഉപയോഗിച്ചാണ് തയ്ക്കാൻ തയ്ക്കുന്നത് പിന്നെ എൻ്റെ വസ്ത്രങ്ങൾ തയ്ക്കാൻ എനിക്ക് ഇഷ്ടം ആണ് കൂടുതലും ഫാഷണബിളായിട്ടുള്ള വസ്ത്രങ്ങളൊക്കെ തയ്ക്കാൻ എനിക്കിഷ്ടമാണ് കൂടുതൽ വേഗത്തിൽ മെച്ചപ്പെട്ട രീതിയിലും ചെയ്യാനുള്ള വഴികളുണ്ട് പക്ഷെ ഹോം നമ്മൾ വീട്ടാവശ്യത്തിനാകുമ്പം അങ്ങനെയുള്ള സംവിധാനം ഉപയോഗിക്കാനായിട്ട് കൂടുതൽ എക്സ്പെൻസ് വരാറുണ്ട് പിന്നെ കൂടുതൽ വ്യാവസായിക അടിസ്ഥാനത്തിലാണെങ്കിൽ അതിന് കട്ടിങ് മഷീനുകളും പിന്നെ കൂടുതൽ പേരെയിരുത്തി തയ് തയ്ച്ച് ഓരോ ഓരോ പാർട്ട് പാർട്ട് ആയിട്ട് അതു വെട്ടിക്കൊടുത്തിട്ട് അതു തയ്ച്ചു വരുമ്പം അതു കൂടുതൽ വേഗത്തിൽ തയ്ച്ചെടുക്കാൻ സാധിക്കും അങ്ങനെയൊക്കെ ആണ് വ്യാവസായിക അടിസ്ഥാനത്തിലും തുണിക്കടകളിലൊക്കെ ഇപ്പം സ്റ്റിച്ചിങ് സെൻറ്ററുകളിലൊക്കെ അവർ ചെയ്യുന്നത് അവർക്ക് അന്നേരം പെട്ടെന്നു വളരെ പെട്ടെന്നു തുണികൾ പല മൂന്നാലു പേരിരുന്ന് ഇപ്പോൾ ഒരു ചുരിദാറാണെങ്കിൽ ബോഡി ഒരാൾ ഒരു ഒരു പീസ് ഒരാൾ തയ്ക്കുക അടുത്ത പീസ് ഒരാൾ തയ്ക്കുക കയ്യി കയ്യുടെ ഭാഗങ്ങൾ വേറൊരാൾ തയ്ക്കുക അങ്ങനെ തയ്ച്ചു പെട്ടെന്നു നാലു പേരും തയ്ക്കുമ്പോൾ നാലു പാർട്സായി വരും പിന്നെ അതൊരാൾ ജോയിൻ ചെയ്യുക അങ്ങനെ വരുമ്പം അതു സമയക്കുറവും പെട്ടെന്നു ചെയ്തെടുക്കാം സാധിക്കും നെയ്യുകയെന്നു പറയുമ്പോൾ കമ്പിളി നൂൽ ഉപയോഗിച്ചു സ്വെറ്റർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നെയ്യാറുണ്ട് പിന്നെ എംബ്രോയിഡറി വർക്ക് പിന്നെ തൂവാലകളിൽ ടേബിൾ ക്ലോത്തുകളിൽ ബെഡ് ഷീറ്റുകളിലൊക്കെ എംബ്രോയിഡറി വർക്ക് ചെയ്യാറുണ്ട് അതൊക്കെ ഇഷ്ടം ഉള്ള കാര്യമാണ് അതൊക്കെ കൈ കൊണ്ടു തന്നെ ചെയ്യാനല്ലേ പറ്റുകയുള്ളു അതു മഷീൻ വെച്ചും ചെയ്യാം മഷീൻ ഉപയോഗിക്കാം പക്ഷെ കൈ കൊണ്ടാണ് കൂടുതൽ ചെയ്യുന്നത് അത് ഇഷ്ടമാണ് അങ്ങനെയുള്ള കരകൗശല പണികളൊക്കെ തയ്യലിൽ തുണികളിലൊക്കെ ഇപ്പോൾ ചിത്രപ്പണികൾ ചെയ്യുന്നത് ഇഷ്ടമാണ് പിന്നെ സ്വന്തം തുണികൾ ഫാഷണബിളായിട്ടുള്ള വസ്ത്രങ്ങൾ നൈറ്റികൾ ബ്ലൗസ് ചുരിദാറ് കുട്ടികളുടെ വസ്ത്രങ്ങൾ ഫ്രോക്ക് ഗൗൺ ഇതൊക്കെ തയ്ക്കാൻ ഇഷ്ടമാണ്